പണ്ട് കാലത്തൊക്കെ അതായത് നമ്മളിപ്പോൾ വിറകൊക്കെ എടുത്തിട്ട് അതായത് വിറകൊക്കെ വച്ചിട്ടാണല്ലോ അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ വിറക് വച്ചിട്ട് കത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ആയത്കൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് അതായത് പാചകം ഒക്കെ എളുപ്പമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു എന്തായാലും അതൊരു പോസിറ്റീവ് തന്നെയാണ് ഗ്യാസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെട്ടെന്നാവും അതായത് പെട്ടെന്ന് ചൂടാവും നമ്മൾ അടുപ്പത്തൊക്കെയാവുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടി വച്ചിട്ടുണ്ടെങ്കിലത് കുറെ നേരാവും ചൂടാവാനൊക്കെ അതേപോലെ എന്തെങ്കിലും ഒന്ന് വേവിക്കാനും അങ്ങനത്തെയൊക്കെ പിന്നെ ഇപ്പോൾ കുക്കറൊക്കെ എന്താണ് കുക്കറൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നല്ലോണം കരിയാകും പക്ഷേ ഗ്യാസിൽ ഗ്യാസിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപയോഗമാണ് ഉപകാരമാണ് പിന്നെ എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് വേഗം പാചകം എളുപ്പമാക്കാൻ പറ്റും ഗ്യാസുണ്ടെങ്കിൽ അങ്ങനെ പല ഉപകാരങ്ങളുണ്ട് പിന്നെ ഇതൊരു സ്ഥലത്ത് ഒതുക്കി വച്ചാൽ മതി ഇപ്പോൾ വിറകാകുമ്പോൾ നമുക്കിങ്ങനെ അതായത് അടുപ്പിന്റെ അടിയിലൊക്കെ കുറേ ഇങ്ങനെ നിരത്തിവച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടാണ് പിന്നെ ഗ്യാസ് ആകുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒതുക്കി തുടച്ച് വൃത്തിയാക്കി വെക്കാം